ഹലോ ആ ആ അതെ

അത് വേണ്ടപ്പാ ആ ഹാ ഹാ ഹാ ആ ആ ആ ആ ആ ഞാനുണ്ട് ഞാൻ കാസർഗോഡിലുള്ളത് ഇപ്പോൾ ഞാൻ വന്നിട്ടുണ്ട് ഒരു ആളെ ഇറക്കാൻ വേണ്ടിയിട്ട് നീ അവിടെ പുതിയ ബസ് സ്റ്റാൻഡിൽ പുറത്ത് വന്നു ചന്തൂൻ്റെ സൈഡിലായിട്ടില്ലേ അവിടെ നിന്നോ പറഞ്ഞോ സ്ഥലം പറഞ്ഞോ അപ്പോൾ അവിടുത്തേക്ക് ഞാൻ വരാം നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങൾക്ക് പോകേണ്ടത് എവിടെ പോകണ്ടത് ബേക്കൽ ബേക്കൽ കോട്ട ഉണ്ട് അപ്പുറം ബീച്ചും ഉണ്ട് അതായത് നിങ്ങൾ ഇപ്പോൾ എന്നാൽ നാലര ആയില്ലേ അതായത് അഞ്ചരക്ക് ബേക്കൽ കോട്ട അടക്കും പിന്നെ ബീച്ചാണ് ഓപ്പൺ ഉള്ളത് ഇപ്പോൾ പോയാൽ നിങ്ങൾക്ക് ഒരു അര മണിക്കൂറിൽ കോട്ട കവറാക്കാൻ പറ്റില്ല ആ ആ ഇപ്പോൾ കോട്ട പോവുന്നത് നിങ്ങൾക്ക് നഷ്ടമാണ് കാരണം നിങ്ങൾ ജസ്റ്റ് കയറുമ്പഴേക്ക് നിങ്ങൾക്ക് ഇറങ്ങാനായി അപ്പോൾ ഞാൻ തിരിച്ച് വരുമ്പോൾ സെക്യൂരിറ്റി വരും ആ നിങ്ങൾ കാര്യം ആക്ക് നമ്മൾക്ക് നിങ്ങൾ നാളെ ഉണ്ടോ നിങ്ങൾ നിങ്ങൾ മാത്രം നിങ്ങളെ ഫാമിലിയും ഉണ്ടോ ഫാമിലിയുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് ഫാമിലി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾക്കവിടെ ബീച്ച് പോവാം ബീച്ച് അവിടെ ഫെസ്റ്റ് ബീച്ച് ഫെസ്റ്റ് നടക്കുന്നുണ്ട് അവിടെ കുഞ്ഞുങ്ങൾക്കുള്ള കുറേ ആക്ടിവിറ്റീസ് ഫുഡ്ഡ് അത് കുറേ സംഭവം ഉണ്ട് നിങ്ങൾ നല്ല എൻജോയ്മെൻറ്റ് ആവും അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് അവിടെ പോവാം അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഈ വെള്ളത്തിലും പാലം ഉണ്ട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇല്ലേ വെള്ളത്തിൽ അതെല്ലാം ഉണ്ട് അപ്പം നമുക്ക് നല്ല എൻജോയ് ആണത് ആ ഇന്ന് നമ്മൾക്ക് അവിടെ പോവാം കാരണം കുറച്ച് ലേറ്റ് ആയില്ലേ ആ ഒന്ന് ബീച്ചിൽ പോയിട്ട് നിങ്ങൾ അവിടെ താമസം എവിടെ അപ്പോൾ അതെ അത് ബുക്ക് ആക്ക് ബുക്ക് ആക്കീ റെഡി ആക്കാം ആ ആണോ അതെയോ നിങ്ങൾക്ക് എത്ര പൈസയാ ചോദിക്കുന്നത് ആ ടൗണിൽ തന്നെ സിറ്റി സെൻ്ററ് വലുത്

ഓക്കെ ഞാൻ പറയാം ഞാൻ ഞാൻ ഞാൻ ഇപ്പോൾ വരാം ഞാൻ ഇപ്പോൾ അടുത്ത് എത്തി നമ്മൾ ബാക്കി വണ്ടിയിൽ നിന്ന് മിണ്ടാം നമ്മൾക്ക് കേട്ടോ ഞാൻ വന്നിട്ട് നോക്കിയിട്ട് എന്തെങ്കിലും മിണ്ടാം ആയിക്കോട്ടെ നിങ്ങൾ അവിടെ പുറത്ത് തന്നെ നിന്നോളൂ

ആ അത് ഇപ്പോൾ എത്തും ഇപ്പോൾ എത്തും ശരി